ഞാൻ വാ വായിച്ചതിൽ അവസാനം വായിച്ച പുസ്തകമാണ് പൗലോ കൊയ്ലോടെ ആൽക്കിമിസ്ട് എന്ന ബുക്ക് അതില് അതില് പറയുന്നത് ദേ നമ്മള് എന്തിന് വേണ്ടി ആഗ്രഹിച്ചാലും ആ എന്തിന് വേണ്ടി ആഗ്രഹിക്കുന്നോ അതിന് അതിന് വേണ്ടി യൂനിവേസ് നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് അതായത് നമ്മൾ എന്തിന് വേണ്ടി ആഗ്രഹിക്കുന്നോ ആ ആഗ്രഹം സാധിച്ച് തരാനായിട്ട് നമ്മളുടെ യൂണിവേർസ് തന്നെ നമ്മുടെ കൂടെ നിൽക്കും എന്ന ഒരു ഒരു ഒരു തൊട്ടാണ് അതിൽ കൂടെ ആ ഒരു പുസ്തകത്തില് പൗലോ കൊയ്ലോ കൊടുക്കുന്നത് ആ ഒരു ബുക്ക് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊ ഒരു ബുക്കാണ് കാരണം ഈ ഇപ്പോൾ നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മള് എന്താ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ആണെങ്കിലും നമ്മളാ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് ഊർജം കിട്ടും അതായത് നമുക്ക് നമ്മള് എന്തിന് വേണ്ടി എന്തിന് വേണ്ടിയെലും നമ്മള് ശ്രമിച്ചാല് അത് നമുക്ക് നേടി എടുക്കാൻ കഴിയുമെന്നൊരു എന്നൊരു പൂർണമായ വിശ്വാസം ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ഒരു എനർജി നമുക്ക് കിട്ടും ആ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ബുക്കാണ് അതാ അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ എനർജി കിട്ടി അതായത് എന്നെ കൂടുതൽ ഇൻസ്പെയർ ചെയ്തൊരു ബുക്കാണ് പൗലോ കൊയ്ലോടെ ആൽകിമിസ്ട് എന്ന ആ ബുക്ക് അതാണ് ഞാൻ അവസാനമായിട്ട് വാങ്ങി വായിച്ച എന്നെ ഇൻസ്പെയർ ചെയ്ത് ഒരു ആ ഒരു കാര്യ ബുക്ക്